ടെക്നോളജിയിൽ നിന്നും വിട്ടുനിൽകണമെന്ന ഉദ്ദേശത്തോടുകൂടി പോയത് ഞാൻ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിക്കാണ് അവിടെയെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ആ സ്ട്രെസ്സൊക്കെയുണ്ട് പറഞ്ഞാൽ നല്ല റിലാക്സേഷൻ കിട്ടും അവിടെ പോയിനിന്നാൽ കാടും മലകളും അങ്ങനെയൊക്കെയായിരുന്നു ആ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ പോയപ്പോൾ കുറേ പേരെ പരിചയപ്പെട്ടു ആര് അറി അറിയുന്ന വ്യക്തികൾ ആയിരുന്നില്ല ആരും അവരും ഞമ്മളെ പോലെ തന്നെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഇരുന്ന് റിലൈ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ് അങ്ങോട്ട് അപ്പോൾ അവിടൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് മൊത്തത്തിൽ ഒരു മല മലേനെ കുറിച്ചിട്ടാണ് ആണ് അവിടെ കൂടുതൽ പറയണ് കാട് കാട് ഉള്ളിലുള്ള ഉള്ളിലോട്ടു പോകുമ്പോൾ നമ്മൾ കാടേരിയ പോലെയാണ് അവിടെ നന്നായിട്ട് യുട്ട്ലൈസ് ചെയ്യാൻ പാറ്റും നമ്മളുടെ ടൈം നന്നായി യൂട്ട്ലൈസ് ചെയ്യാൻ പറ്റും നല്ല കാണാൻ പറ്റിയ നിറയേ സ്ഥലങ്ങളുണ്ട് ഉണ്ട് പിന്നെ ആനകൾ പുലികൾ അങ്ങനെയൊക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാനായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറെ പേർ എക്സ്പ്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങ ആ സ്ട്രെസ്സിനിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യുട്ടിഫുളായിട്ടുള്ള പ്ലേസെന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി തന്നെയാണ്